ഒരിക്കലുമില്ല ഒരു രഹസ്യ ചേരുവയും ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല എല്ലാവരുടെയും ഇഷ്ടം മനസ്സിലാക്കി അവർക്കു വേണ്ട വിധത്തിൽ വേണ്ടതു പോലെ ഉണ്ടാക്കി കൊടുക്കും ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമല്ല ചില വിഭവത്തിൽ കുറച്ച് അധികം മസാലപ്പൊടികളോ എന്തെങ്കിലും ചേർക്കേണ്ടി വരും ചില വിഭവത്തിൽ മസാല പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്ക കുറയ്ക്കേണ്ടി വരും അങ്ങനെ അല്ലാതെ വേറൊരു രഹസ്യ ചേരുവയോ ഒന്നുമില്ല കൂട്ടിയും കുറച്ചും അപ്പുറവും ഇപ്പുറവും ഇട്ടു കൊടുക്കും അത്യാവശ്യം വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എല്ലാ വിഭവങ്ങളും എല്ലാവരും ആസ്വദിച്ചു കഴിക്കുന്നത് കാണുമ്പോൾ ഒരു രസമാണ് മധുരം പുളിപ്പ് എരുവ് ഇതൊക്കെ ആർക്കൊക്കെ എത്രയാണ് വേണ്ടതെന്ന് അറിയുന്നതു കൊണ്ട് അവരവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു കൊണ്ട് ഞാൻ ചെയ്യുന്നു അതല്ലാതെ ഒരു രഹസ്യ ചേരുവയോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ഇടുകയോ അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നല്ല ഭക്ഷണം എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടത്തിന് ഞാൻ ചെയ്തു കൊടുക്കും അവരത് ആസ്വദിച്ച് കഴിക്കും ഇതൊക്കെ അല്ലാതെ ചേരുവ കൂട്ടി കുറച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് അതല്ലാതെ രഹസ്യ ചേരുവയായിട്ട് ഒന്നുമില്ല